ഹലോ അതേ അതു തന്നെ അത് ഓർഡർ ചെയ്തു പക്ഷെ ഇന്നായിരുന്നു അതിന്റെ ഡെലിവറി വന്നേക്കുന്നത് ഞാൻ ആക്ചൊലി എനിക്കിത് പ്രീമിയം ആണ് ചെയ്തേക്കുന്നത് ഇന്നെനിക്ക് ഫാസ്റ്റ് ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നാളെ ഹൗസ് വാമിങ്ങ് ആണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അവസാന നിമിഷം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനത്തേന്ന് നമ്മൾ അപ്പോഴേക്കും അല്ല നമുക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അത് എൻ്റെ അടുത്ത് മെൻഷൻ ചെയ്യണമായിരുന്നു ഇത്ര ഡിലേ വരും എന്നുള്ളത് ഇതിപ്പം നമുക്ക് നാളത്തേക്കുള്ള പരിപ്പാടിക്ക് വേണ്ടിയാണ് ഹൗസ് വാർമിങ്ങിൻ്റെ സംഭവത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് ഓർഡറ് ചെയ്തേക്കുന്നത് അതും കോംബോ പാക്കിങ് പ്രീമിയറിലാ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ അവസാന നിമിഷം പറയാണ് നാളെ പറ്റത്തില്ല ഇന്ന് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നേ ഇന്നലെയും വിളിച്ചപ്പോൾ ഇതുതന്നെ ഓൾറെഡി എൻക്വയർ ചെയ്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് കൺഫോം ആയിട്ട് ഇന്ന് എത്തും പറഞ്ഞത് ആണ് ഞാൻ ചോദിക്കുന്നത് ഇന്നലെയും ഇതുതന്നെ ആണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ കൺഫോം ചെയ്തത് ആണ് ഇന്ന് മാക്സിമം അഞ്ചുമണിക്ക് മുൻപ് ഇന്ന് സാധനം വരും അത് ഡെലിവർ ചെയ്യും എന്നുള്ള ഒരു കൺഫോർമേഷൻ എനിക്ക് ഇന്നലെ പറഞ്ഞിരുന്നു ഇതുവരെ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഇന്ന് പറയുന്നു ഇനി നാളെയും വിളിച്ച് പറയത്തില്ലേ നിങ്ങൾ ഇപ്പോൾ ഇത് ഞാൻ എങ്ങനെയാ വിശ്വസിക്കണ്ടേ ഇത് ഇപ്പോൾ നാളത്തതിന് എങ്ങനെയാ കൺഫോം ചെയ്യുന്നത് ഇത് നാളെ എനിക്ക് ഹൗസ് വാർമിങ്ങിൻ്റെ പാല് പാത്രം വരുമ്പത്തേനും എനിക്ക് അത്രയും കോംബോ പാക്കേജ് കിട്ടുന്നതാണ് നമുക്ക് കംപ്ലയിന്റ് റെജിസ്റ്റർ ചെയ്യാൻ ഓഫിഷ്യൽ സൈറ്റ് വല്ലതും ഉണ്ടോ അങ്ങനെ ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ വന്ന് കളക്റ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് എനിക്ക് അത്രയും ഇന്ന് തന്നെ എനിക്ക് സാധനം വേണം എന്നുള്ളതാണ് അത്യാവശ്യമാണ് അത്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് അത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇന്നലെ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് ഇപ്പോൾ ഇന്നും പറയുന്നത് നാളെയും ഞാൻ എന്തായാലും ഇന്ന് ഇന്നുകൂടെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഞാൻ എന്തായാലും അത് വിശ്വസിക്കുന്നു നാളെ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഓക്കെ